പുസ്തകങ്ങള് വായിക്കുന്ന ശീലം ആദ്യഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു പക്ഷേ എനിക്കേറ്റവും ഇഷ്ട്ടപ്പെട്ട ഇഷ്ടമില്ലാത്തൊരു പുസ്തകം എന്ന് പറയുന്നത് ഒരു പുസ്തകമായിരുന്നു നമ്മുടെ ഈ ഭൂമീയുടെ അവകാശികൾ എന്ന് പറയുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഈ പുസ്തകം ഇ പുസ്തകത്തിന്റെ ഒരു കഥ കഥയിലേക്ക് വരുമ്പോൾ അത് ആശയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ പുസ്തകത്തെ ഇഷ്ടപ്പെടാൻ കാരണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബഷീറ് ഈ പുസ്തകമെഴുതുമ്പൊളൊത്തിരി ആശയങ്ങളിതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണുമ്പോഴൊന്നും ഒരു ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെടില്ല എനിക്കും അതുപോലെ തന്നെ ആദ്യം അനുഭവപ്പെടുത്തി ഈ പുസ്തകം ഇഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ആ പുസ്തകം ഇഷ്ടപ്പെടുന്നതിന്കാരണമായിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചു തുടങ്ങി അതിൻ്റെ പ്രാരംഭഘട്ടത്തിലോക്കെ ആ പുസ്തകത്തിൻ്റെ ആശയങ്ങളും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പൊതുവായിട്ട് ഇഷ്ടപ്പെടാനും മറ്റു കാര്യങ്ങൾക്കൊന്നും കഴിയില്ല പിന്നീട് ആ പുസ്തകം കുറെ വായിച്ച് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ആശയങ്ങളെന്തക്കെയാണ് എന്തൊക്കെ ആശയങ്ങളാണ് ആ പുസ്തകം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളിലൂടെ അങ്ങനെ മനസ്സിലാക്കാനും മറ്റു കാര്യങ്ങൾലേക്കും നയിച്ചു പിന്നെ ഈ പുസ്തകം മാത്രമല്ല അനവധി പുസ്തകങ്ങള് വായിച്ചിട്ടുണ്ട് ഈ അനവധി പുസ്തകങ്ങള് വായിക്കുമ്പൊളും ആദ്യമൊക്കെ ആ പുസ്തകങ്ങളുടെ പൊതുവായുള്ള പൊരുളുകള് മനസ്സിലാക്കാൻ കഴിയില്ല ഏതൊരു പുസ്തകമാണെങ്കിലും അത് മൊത്തമായിട്ട് മന വായിച്ചു മനസ്സിലാക്കുമ്പൊഴാണ് അതിൻ്റെ ആശയങ്ങള് കിട്ടുക അങ്ങനെയാണ് ഞാനും പുസ്തകങ്ങള് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഈ ഞാൻ പറഞ്ഞത് പോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികള് അതുപോലെ തന്നെ ഈ തകഴി ശ്രീ ശ ശിവശങ്കരപ്പിള്ളയുടെ കയർ എന്ന് പറയുന്ന പുസ്തകമാണെങ്കിലും നോവലുകളാണെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നതിന് കാരണം ഈ ഒരു തലത്തിലേക്കാണ് നയിച്ചിരിക്കുക അപ്പോൾ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളെന്ന് പറയുന്നൊരു പുസ്തകത്തിലേക്ക് വായിച്ചപ്പോൾ എന്റെ ഒരു മനസിലേക്ക് ആദ്യമായിട്ട് ആ മനസ്സും മാറുന്ന അല്ലെങ്കിൽ മനസിലേക്ക് ആദ്യം നമ്മളെഴുതി വെച്ച ഒരു നെഗറ്റീവ് ചിന്തയിൽ ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്നു പറയുന്ന ആശയം ഇത്രയെ ഉള്ളു അതായത് ബഷീറിൻ്റെ ഉള്ള എന്താണ് ബഷീറ് അതിൽ രചിച്ച കാര്യങ്ങളാണ് കാരണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഒരൂ എന്താണ് ഒരു തോട്ടത്തില് ഒരു പറമ്പിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ പറമ്പിലൂടെയാണ് മറ്റു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊട് കൂടുതല് കാര്യങ്ങള് മനസിലാക്കാനും എന്തൊക്കെയാണ് കാര്യങ്ങളെയ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പറയുന്ന ആശയങ്ങളെ ഗ്രഹിക്കുവാനും കാരണമായി പിന്നെ അത് മാത്രമല്ല ഈ പുസ്തകങ്ങളില് കേന്ദ്രീകരിച്ചിരിക്കുന്ന അനേകം ആശയങ്ങള് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആശയങ്ങള് എങ്ങനെയൊക്കെയാണ് ഈ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള് എൻ്റെ മനസ്സ് മാറുന്നതിന് സു പ്രധാന പങ്ക് വഹിച്ചത് രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് അവിടെ ഉള്ള അമ്മയും അതുപോൽ തന്നെ അമ്മയുടെ ഭർത്താവും ഈ അമ്മ എന്ന് പറയുന്നത് ആ പറമ്പിലുള്ള ജീവികള് മറ്റു കാര്യങ്ങള് ഇഷ്ട്ടപ്പെടാത്തൊരു കഥാപാത്രാണ് ഒരു തിന്മ നിറഞ്ഞ കഥാപാത്രം പക്ഷെ ഈ ഭർത്താവിനെ സമ്പന്ധിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ കാര്യങ്ങള് ആശയത്തിലടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഈ ഭർത്താവിൻ്റെ ചിന്താഗതിയാണ് നമ്മളെ ഏതൊരു വ്യക്തിയെയും വായനക്കാരൻ്റെ ഹൃദയങ്ങളിലേക്ക് അല്ലെങ്കില് വായനക്കാരുടെ മനസ്സുകളെ സ്പർശിക്കുന്ന തരത്തിലേക്ക് നയിക്കുക അപ്പോൾ ഇതാണെൻ്റെ മനസ്സ് മാറുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പിന്നെ അത് മാത്രമല്ല ഈ പുസ്തകം ആദ്യം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് കൂടുതലായിട്ട് ചിന്തിച്ച് കൊണ്ടിരുന്നപ്പൊൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരാശയം എന്ന് പറയുന്നത് പൊതുവായിട്ട് മനുഷ്യനൊക്കെ സ്വാർഥ പരമായുള്ള താല്പര്യങ്ങൾക്ക് പിന്നാലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്വാർത്ഥത നിറന്ന ഈ മനോഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും മനസ്സുകളിൽ നിന്നും ഒക്കെ എടുത്ത് കളയുകയാണെങ്കിൽ ഒരുപക്ഷേ ഒരു നല്ല ചിന്താഗതിയിലേക്ക് നല്ല മനസുകളിലേക്ക് നല്ല മനസ്സുള്ളവരായിട്ട് മാറുകയാണെങ്കില് ആ ചിന്താധാരയിലേക്ക് വരുന്നതിനും ഒത്തിരി ആശയങ്ങള് പ്രാവർത്തികമാക്കും തരത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ വായന ഇഷ്ടപ്പെടുന്നതിനും അതുപോലെതന്നെ ആദ്യം ഇഷ്ടപ്പെടില്ലെന്ന് തോന്ന് തോന്നിയ ഏത് പുസ്തകമാണെങ്കിലും ആ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും പിന്നതുമാത്രമല്ല ഞാന് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളിപ്പോൾ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ അത് അത് മാത്രമല്ല മറ്റൊരു പുസ്തകത്തിലേക്ക് എടുക്കുകയാണെങ്കില് കയർ എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഈ തകഴി ശങ്കരപ്പിള്ള എഴുതിയ ഈ ആലപ്പുഴയിലെ സാധാരണപ്പെട്ട തൊഴിലാളികളുടെ ജീവിതത്തെ അടിസ്ഥനപ്പെടുത്തിയിട്ടാണ് അപ്പം ഈ പുസ്തകത്തെ ആദ്യമൊക്കെ വായിക്കുമ്പം നമുക്ക് എന്താണൊരു ബോറടിപ്പിക്കും പക്ഷെ പിന്നീടതിൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണത്തിലേക്ക് നയിക്കുന്ന ഒരാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് കയർ എന്ന് പറയുന്നതില് അനേകം ജീവിതങ്ങളെക്കുറിച്ച് അടയാളപ്പെടുത്തുന്നു സാധാരണ മനുഷ്യന് അന്ന് അന്നത്തെ ആഹാരത്തിന് വകയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവരനുഭവിക്കുന്ന പ്രയാസപരമായുള്ള ഘട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ജീവിതങ്ങള് വഴിമുട്ടിയ ചിന്താരി രീതിലേക്ക് നയിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടുന്നതിനുള്ളവസ്ഥകളെക്കുറിച്ചാണ് അതിൽപ്പെടുന്നെ അപ്പോ ആദ്യം വായിക്കുമ്പം എന്താണ് സാധാരണ തൊഴിലാളികളെ പുസ്തകം നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് ഈ കഥയ് പുസ്തകത്തിന്റെ ഉള്ളറകളിലേക്ക് എത്തുന്ന സമയത്ത് അതിഷ്ട്ടപ്പെടുന്നതിനും അതിനുള്ള ആശയങ്ങളെ കൂടുതല് മനസിലാക്കാനും ഖ ഘടകമായി ഞാൻ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കയർ എന്ന് പറയുന്നതിലനേകം ആശയങ്ങള് അത് അതോടൊപ്പംതന്നെ അത് അത് ജനഹൃദയങ്ങളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മനസിലേക്ക് വരാൻ കാര എൻ്റെ മനസ്സിന് കാരണം മനസ്സ് മാറുന്നതിന് ഘടകമായുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഞാന് സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ ചിന്താരീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നീട് അതിൽ നിന്ന് മാറി പരസ്പര സഹകരണം പരസ്പരസഹായം ഒരാൾക്കെങ്ങനെ നന്മകൾചെയ്യാം അല്ലെങ്കിൽ ഈ ആശയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ആ രീതിയിലേക്ക് പോകുന്ന ഒരാശയത്തിൽ കേന്ദ്രികരിച്ചു കൊണ്ട് അങ്ങനെ ആ അതിലേക്ക് തന്നെ ചിന്തകള് മറ്റുകാര്യങ്ങളൊക്കെ മാറുന്നതിന് പ്രധാനപ്പെട്ട പങ്കു വഹിച്ചു അപ്പോൾ എനിക്ക് ആ പുസ്തകങ്ങളെ ക്കുറിച്ച് കൂടുതലിഷ്ടപ്പെടുന്നതിനും മനസിലാക്കുന്നതിനുമായിട്ടു ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ആ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിന് കാരണമാവുകയും ചെയ്തു മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കില് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബാലചന്ദ്രൻ ചുള്ളിക്കാടെഴുതിയ സന്ദർശനം എന്ന് പറയുന്നൊരു കാവ്യമാണ് ഈ കാവ്യത്തിലേക്ക് ഈ പുസ്തകത്തിലേക് വരുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഈ പുസ്തകം ആദ്യമൊന്നും വായിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടു പുസ്തകങ്ങളെപ്പോലെതന്നെ ഈ പുസ്തകവും നമുക്ക് പൊതുവെ ഇഷ്ടപ്പെടില്ല കാരണം നമ്മള് ആ രീതിയിലെ ചിന്തയോടോ അല്ലെങ്കിൽ ആ ജീ രീതിയോടോ മറ്റ് കാര്യങ്ങളോടുകൂടിയല്ല നമ്മളാവിഷ്കാരങ്ങള് നടത്തുന്നത് പക്ഷെ ഈ സന്ദർശനമെന്ന് പറയുന്ന കാവ്യത്തിലേക്ക് ഏതൊരു വ്യക്തി ഇതിനെ ഇഷ്ടപ്പെടാന് അദ്ദേഹത്തിൻ്റെ മ നമ്മുടെയൊക്കെ മനസ്സ് എൻ്റെ മനസ്സൊക്കെ മാറുന്നതിന് ക ഘടകമായിട്ട് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രണയിനിയും കവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പുസ്തകത്തില് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ സംസാരിക്കുന്നസമയത്ത് ഈ അതിലുള്ള ഒരു രണ്ട് വരി പറയുന്നുണ്ട് അധിക നേരമായ് സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ഈ വ ഈ രണ്ട് വരികളിലൊക്കെ എന്താണെന്നാ ഈ കവിക്ക് പ്രണയിനിയോടുള്ള അ ആത്മാർഥമായുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ആ പുസ്തകം ഇതൊരു ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിൽ അത് അതവരുടെ മനസ്സുകളെ മാറ്റുന്നതരത്തിലേക് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു അപ്പം ആ രീതിയിലേക്ക് എന്താണത് മാത്രമല്ല അവസാനം ഈ കഥയുടെ കഥാന്ത്യത്തില് ഈ പ്രണയിനി കവിയെ ഉപേക്ഷിച്ചുപോവുകയാണ് കവിയെ ഉപേക്ഷിച്ചുപോകുന്ന സാഹചര്യത്തിലെന്താണ് സംഭവിക്കുക അവരുടെ ജീവിതം മാറുന്നതിനു വഴിമുട്ടുന്നതിലേക്കൊരു വഴി നയിക്കുന്നു അപ്പോൾ കവി അപ്പഴും പ്രണയിനിയെ മറക്കുന്നില്ല പ്രണയിനി ഉപേക്ഷിച്ചുപോകുമ്പഴും അവിടെ ആത്മാർത്ഥതയുള്ള സ്നേഹത്തിന്റെ ഒരു ദർശ് ദർശനം എൻ്റെ ഹൃദയത്തിലേക്കുവന്നു അതാണെൻ്റെ മനസ്സുമാറുന്നതിന് എനിക്ക് സന്ദർശനം എന്ന് പറയുന്ന കാവ്യം കേട്ടപ്പം എൻ്റെ മനസ്സിലേക്ക് ആ പുസ്തകം തന്നൊരേറ്റവും വലിയ ഒരൂ ഘടകമെന്നു പറയുന്നത് ഒരു കാര്യമെന്നു പറയുന്നത് ഇത്രയും ഉള്ളു അതായത് മറ്റുള്ളവരുടെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കില് അവര് സ്നേഹിക്കണമെന്നു പറയുന്ന വലിയ ഒരു ഉദാത്തമായിട്ടുള്ള മാതൃക ഇവിടെ വ്യക്തമാക്കുന്നു ഈ പുസ്തകം പിന്നെ സ്നേഹത്തിൻ്റെ വിലയെ കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയെ കുറിച്ചൊക്കെ ഈ പുസ്തകം പറയുന്നു ഇതൊക്കെ മനസ്സ് ഒത്തിരിമാറുന്നതിന് നല്ലൊരു ചിന്താഗതികൾ ഉദിക്കുന്നതിന് കാരണമായി പിന്നെ ആദ്യം ഞാനിങ്ങനെ വിചാരിച്ചു ഈ പുസ്തകം വായിച്ച സമയത്ത് ആദ്യം എന്തുകൊണ്ട് ഞാനിത് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ഈ പുസ്തകം ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടണം ഇങ്ങനെ ഉള്ള അനവധി കാര്യങ്ങളിലേക്ക് നയിക്കുന്നതിന് ഒരു പ്രാധാനപ്പെട്ട ഘടകമായിട്ടിത് ആദ്യം വായിക്കുമ്പൊഴൊന്നും ഇഷ്ടപ്പെടില്ല പിന്നീട് വായിക്കുമ്പത് മധുരമായിട്ടുള്ള ഓർമകളിലേക്ക് മറ്റ് കാര്യങ്ങൾലേക്ക് ഒക്കെ നയിക്കുകയും ആ രീതികളിലൂടെത്തന്നെ മുന്നേറുവാനും ആ രീതികളിലൂടെത്തന്നെ നമ്മുടെ ചിന്താധാരകളെ പരിഭോഷിപ്പിക്കുന്നതിനും പ്രമുഖമായിട്ട് ഉള്ള പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്ന ആശയത്തിലേക്കും നയിക്കുന്നു പിന്നീട് ഞാനെന്താ അടുത്തൊരു പുസ്തകത്തെക്കുറിച്ച് എ പറയുകയാണെങ്കില് അനവധി പുസ്തകങ്ങള് വായിച്ചൊരറിവ് ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ ഭൂമിയുടെ അവകാശികളായ ബഷീറിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ സന്ദർശനം എന്ന് പറയുന്ന ബാലചന്ദ്ര ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പുസ്തകവും തകഴി ശിവശങ്കരപിള്ളയുടെ കയറും ഇതൊക്കെ ഒത്തിരി ആശയങ്ങള് നൽകിയ അർത്ഥതലത്തിലേക്ക് നയിച്ചൊരു പുസ്തകമാണ് മനസ്സുമാറുന്നതിനു മനസ്സിലൊത്തിരി നല്ല മൂല്യങ്ങള് വളർത്തുന്നതിനും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പുസ്തകങ്ങളാണ് പിന്നീട് എന്താണ് അടുത്തൊരു പുസ്തകത്തിലേക്ക് വരുമ്പോഴ് ഏതൊരു വ്യക്തിയുടേയും ഹൃദയത്തെ ഷെക്സ്പിയറിൻ്റെ കഥകൾ ഷെക്സ്പിയർ സ്റ്റോറീസ് ഈ ഷെക്സ്പിയറിൻ്റെ കഥകളിലൊക്കെ പ്രധാനപ്പെട്ട പ്രമേയം ആദ്യമായിട്ട് ആദ്യം വായിക്കുന്നൊരു വ്യക്തിക്കതൊരു തമാശയായിട്ടൊ അല്ലെങ്കിൽ ആ രീതികൾലൂടൊക്കെയാണ് തോന്നുക പക്ഷേ ഇതിനെ ഇഷ്ടപ്പെടുത്തുന്ന ഒരിത് ഷേക്സ്പിയറിന്റെ ഒരു കഥാരചന എന്ന് പറയുന്നത് വളരെ മാന്ത്രികമായിട്ട് ഉള്ള ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ആ രീതിയിൽ കഥാഗതികളെ ആവിഷ്കരിച്ച് മനുഷ്യമനസ്സുകളിലേക്ക് ഒത്തിരി നല്ല മൂല്യങ്ങള് കൊണ്ടുവരാൻ ഷേക്സ്പിയറിനെ കഥകൾലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാ ഷേക്സ്പിയർ സ്റ്റോറീസ് അതാണ് ഈ കഥകളുടെ പേര് ഷേക്സ്പിയർ രചിച്ച അദ്ദേഹത്തിൻ്റെ ജീവിത ആനുഭവങ്ങളിൽ ഒരു നാടകമെന്ന് പറയുന്ന രൂപത്തില് സ്കിറ്റ് എന്ന് പറയുന്ന രീതിയില് നാടകമെന്നുപറയുന്ന രീതീലാണ് അദ്ദേഹം ആവിശ്കരിച്ചിരിക്കുന്നത് അപ്പം ഇതിലക്കെന്താണ് ഒത്തിരി ആശയങ്ങള് മനസ്സിലാക്കുന്നതിനും ആശയങ്ങള് ഗ്രഹിക്കുന്നതിനും ഒക്കെ ഒരു മുഖ്യമായുള്ള പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ ഷേക്സ്പെയറിൻ്റെ രചന കൂടുതലായിട്ട് എൻ്റെ മനസ്സു മാറുന്നതിന് ഘടകമായുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഏതൊരു കഥയെഴുതുവാണെങ്കിലും അതിലുള്ള നിരീക്ഷ്ണം സമൂഹത്തെ കുറിച്ചുള്ള നിരീഷണം അല്ലെങ്കിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തലങ്ങളെ വിമർശനാത്മകമായുള്ള തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ രീതിയിൽ ഒത്തിരിയായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ആ കാര്യങ്ങളുടെ പുത്തൻ ആശയങ്ങളെ പരിപോഷിപ്പികുന്നതിലേക്ക് നയിക്കുന്നു അതു മാത്രമല്ല ഷെക്സ്പിയർ എഴുതിയിരിക്കുന്ന അനേകം നാടകങ്ങള് സമൂഹത്തിലേക്ക് ആയിട്ടൊരു മാർഗ്ഗദർശ്നി കൂടിയാണ് സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക് കാരണമാകുന്നത് അപ്പോൾ എൻ്റെ മനസ്സ് മാറാൻ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഷേക്സ്പിയര് രചനകള് മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയത് പോലെ തന്നെ എനിക്കും അനേകം രചനകള് മറ്റുകാര്യങ്ങള് നടത്താം അത് അത് അതോടൊപ്പം തന്നെ സമൂഹത്തിന് നന്മയിലേക്ക് നയിക്കാന്നൊരുതരം മാർഗ്ഗദർശനം ഈ പുസ്തകം വായിച്ച് വായനയിലൂടെ ലഭിച്ചു അതാണ് ഈ പുസ്തകം ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽപ്പോലും പിന്നീട് ഈ പുസ്തകം ഇഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്തു അപ്പം ഇത് ഈ ഇത്രയും അർത്ഥതലങ്ങളെ ഒത്തിരി അർത്ഥതലങ്ങൾ ഈ പുസ്തകത്തിനു കിട്ടി പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങ പുസ്തകമാണ് നമ്മുടെ കാളിദാസ കൃതികള് കാളിദാസൻ്റെ ഒക്കെ കൃതികളിലൂടെ എന്താണ് ഈ മഹാഭാരതം അതുപോലെ തന്നെ ഇതിഹാസകാവ്യങ്ങളുടെ കഥാപാത്രങ്ങളെ വളരെ സൗമ്യമായുള്ള രീതീയിലാണ് ഈ കാളിദാസൻ്റെ കാളിദാസ കൃതികളില് ഒരുദാഹരണം പറയുകയാണേൽ അഭിജ്ഞാനശാകുന്തളം വിക്രമോർവശീയം ഇതൊക്കെ കാളിദാസൻ രചിച്ച കൃതികളാണ് അപ്പോൾ ഈ കൃതികളിലൂടെ ഒക്കെ എന്താണ് ഇതിഹാസകാവ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയും ആദ്യം ഇഷ്ടപെടാത്തൊരു കാര്യത്തെ അല്ലേങ്കില് നമുക്കറിയാത്തൊരു സംഭവത്തെ ഇഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള അത്ഭുത കഥാപാത്രങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നതെന്ന് പറയുന്ന സന്ദർഭത്തിലേക്കുവരുമ്പോൾ ആ രീതിയിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാന് ഒക്കെ സാധിച്ചു പിന്നതു മാത്രമല്ല കാളിദാസൻ്റെ മേഘസന്ദേശം എന്ന് പറയുന്ന കൃതികളില് സന്ദേശത്തെ അയയ്ക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തന്നെ മനസ്സ് മാറുന്നതിന് ഇവിടെ ഘടകമായുള്ള നമുക്ക് ഒരു കാര്യങ്ങള് നമ്മള് പൊതുവായിട്ട് ഈ ഡിജിറ്റൽ യുഗത്തില് പല കാര്യങ്ങള് നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇന്ന് പണ്ട്കാലത്തെപോലെ സന്ദേശങ്ങളായിട്ട് സംസാരിച്ചാൽ കുറച്ചും കൂടെ ഭാവനാത്മകമായിട്ടുള്ള രീതികൾ ആശയത്തെ മെച്ചപ്പെടുത്താൻ കഴിയും അപ്പോൾ ആദ്യം ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുകയും വായിച്ചു തുടങ്ങിയ ശേഷം ഇഷ്ടപ്പെടുകയും ചെയ്ത അനേകം പുസ്തകങ്ങള് ജീവിതത്തില് ഒരുവധി മാ ഒരു ഒരു അനവധി മാറ്റങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇ പുസ്തകങ്ങളുടെയൊക്കെ എൻ്റെ മനസ്സുകളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്ക് വന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്